ഓ കേരളത്തിലൊക്കെ നല്ല സ്ഥലങ്ങളാണ് ഉള്ളത് പക്ഷെ അതു വൃത്തിയായിട്ട് കൂടുതൽ വൃത്തിയായിട്ട് സൂഷിക്കുകയാണെങ്കിൽ മറ്റുള്ളവർക്കും കൂടുതൽ ഒരു മനസ്സിനൊരു ശാന്തി സമാധാനമൊക്കെ കിട്ട്വേ അന്ന നമ്മൾ കനാലുകൾ പുഴകളിലോട്ടൊക്കെ നോക്കുമ്പം മൊത്തം പ്ലാസ്റ്റിക്ക് ആണ് ആദ്യം ഈ പാ പ്ലാസ്റ്റിക്കുകളൊക്കെ ഉന്മൂലനം ചെയ്യണം പ്ലാസ്റ്റിക്ക് ഫാക്ടറികൾ പ്ലാസ്റ്റിക്ക് വേണം പക്ഷെ ഈ പ്ലാസ്റ്റിക്ക് കൂട് പ്ലാസ്റ്റിക് ബോട്ടിലുകളൊക്കെ നമ്മൾ മാറ്റണം അതു മാ മാറ്റി അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കുകൾ ശേഖരിക്കാനായിട്ട് സ്ട്രിക്റ്റായിട്ട് കൊണ്ടു വരണം വെയ്സ്റ്റ് മേനേജ്മെൻറ്റ് അതിടാനായിട്ട് പ്രത്യേകം ബിന്നുകൾ പ്രത്യേകിച്ച് പാർക്കിങ് സ്ഥലങ്ങൾ പിന്നെ ടൂറിസം സ്ഥലങ്ങളൊക്കെ റ്റു എ എക്കൊ ഫ്രെണ്ട്ലി അതായത് ടൂ മീൻസ് പരിസരങ്ങളൊക്കെ പ്ലാസ്റ്റിക്ക് വ വലിച്ച് വീ വീക്കരുത് പ്ലാസ്റ്റിക്കൂട് അതൊക്കെ പ്ലാസ്റ്റിക്കവരിലൊക്കെ നമ്മൾ ഉന്മൂലനം ചെയ്യണം എന്നാലെ പിന്നെ അതു പോലെ തന്നെ ഇ കനാലുകളൊക്കെ പായലുകളൊക്കെ കയറിക്കിടക്കുന്നുണ്ട് ഒന്നും അതു മറ്റു ടൂറിസംകാർക്കൊന്നും ഉപയോഗിക്കാൻ പറ്റുന്നില്ല അതൊക്കെയൊന്ന് പായലുകളൊക്കെ നശിപ്പിക്കണം ബോ അതു പോലെ തന്നെ ഒരു മഴ വന്നാൽ കാണാൻ പാ പാടത്തോട്ടും കനാലുകളിലോട്ടൊക്കെ നോക്കിയാൽ ഈ പ്ലാസ്റ്റിക്ക് ബോട്ടിലുകൾ ബീർ കുപ്പികളൊക്കെ വലിച്ചെറിയുക എ അപ്പോളൊക്കെ അതൊക്കെ പരിസരത്തെ മലിനമാക്കുന്ന താണ് ആ അങ്ങനെ ഈ തെല്ല ക്ലീനിങ് ആ ഇനിയിപ്പം ഇത് ഈ പ്ലാസ്റ്റിക്ക് കൂന കൂ കൂടി കിടക്കാല്ലെ അതൊക്കെയൊന്ന് ക്ലീൻ ചെയ്യിപ്പിക്കണം ഗവൺമെൻറ്റ് വഴി ക്ലീൻ ചെയ്യാം എല്ലെ ഉസ്കൂളുകളിൽ നമ്മൾ ബോധവത്ക്കരണങ്ങളൊക്കെ നടത്തി അവരെ സ്കൂളിൽ പിള്ളേരെ ഫസ്റ്റ് അവരെയും കൊണ്ട് ചെയ്യിപ്പിക്കണം എന്നാലെ ഇനി വരും തലമുറകളിൽ നമുക്ക് ഈ പാ പ്ലാസ്റ്റിക്ക് നമുക്ക് ഉന്മൂലനം ചെയ്യാൻ പറ്റും അതന്നങ്ങ് കുട്ടികൾ പ്ലാസ്റ്റിക്ക് കൊണ്ടു വരരുത് പ്ലാസ്റ്റിക് സ സാധനങ്ങൾ ഉപയോഗിക്കരുത് അങ്ങനൊരിതിലോട്ട് കൊണ്ടു വന്നാലേ ഇനിയും അടുത്ത തലമുറകൾ ഇത് പ്രാക്റ്റീസ് ചെയ്യത്തുള്ളു പ്ലാസ്റ്റിക്ക് ഉന്മൂലനം ചെയ്യണം അത് വിലക്കുറഞ്ഞ പ്ലാസ്റ്റിക്ക് ഉപയോഗിക്കാണ്ടിരിക്കുക ക്ലീനിങ് നടത്തുക അതൊക്കെ ചെയ്താൽ ചെയ്യാണെങ്കിൽ നമ്മൾ ഈ കേരളത്തിലെ ക കനാലുകൾ പുഴകളൊക്കെ ഒത്തിരി ഭംഗിയാരിക്കും കാണാൻ അങ്ങനൊത്തിരി ടൂറിസംകാരെയൊക്കെ നമുക്ക് അട്രാക്റ്റ് ചെയ്യാൻ പറ്റും അതു കൊണ്ട് പ്ലാസ്റ്റിക്ക് കമ്പനികൾ തന്നെ നിർത്തലാക്കാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും പ്ലാസ്റ്റിക്ക് ഉപയോഗിക്കാണ്ടിരിക്കണം അതു നല്ല മെച്ചമായിരിക്കും